ഇതുവരെ നടത്തിയതിൽ വച്ചിട്ട് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ടതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പിന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ള ഒരു ഹൈക്ക് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറുമ്പലക്കോട്ട വയനാട്ടിൽ ഒരു കുറുമ്പലക്കോട്ടയെന്ന് പറഞ്ഞിട്ട് സ്ഥലം ഉണ്ട് അവടെപ്പോയതാണ് ഈ വയനാട് ഒരു പടിഞ്ഞാറെത്തറ ആ ഒരു റോഡിലാണ് കുറുമ്പലക്കോട്ടയെന്നു പറഞ്ഞ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അവിടെ പോയതാണ് എനിക്ക് ഏറ്റവും അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾ ഒരു നാലുമണിയാകുമ്പോൾ ഇവിടെപ്പോയി ശരിക്കും അവിടെയൊരു ആറുമണിയാകുമ്പോൾ എത്തണം എന്നാലേ നമ്മൾക്ക് അത് മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ആറുമണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറണം കയറി അത് നോക്ക് അവിടെനിന്ന് മേലെനിന്ന് നിൽക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട് ഫുൾ മഞ്ഞൊക്കെയായിട്ട് ഫുൾ മഞ്ഞ് ഇങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുന്ന ഫുള്ള് പ്രദേശങ്ങളും മഞ്ഞിലായിരിക്കും നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ എൻ്റെ കണ്ണിൽ കണ്ടതിൽ വച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഹൈക്ക് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യൂ ആണ്